മതം എന്ന് ഇപ്പോള് നമ്മള് ക്രിസ്ത്യന്സിനെപ്പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രാര്ത്ഥന കൂട്ടായ്മകൾ പള്ളിയിലെ ഒത്തുചേരൽ കുർബാന ആഘോഷങ്ങൾ ക്രിസ്മസ് പെരുന്നാൾ പിന്നെ ഈസ്റ്ററ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒത്തുചേരാറുണ്ട് പിന്നെ മരണം പിന്നെ ശവമടയ്ക്ക് മാമോദീസാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ക്രിസ്ത്യന് മതത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട് മാതാവിന്റെ പെരുന്നാൾ നമ്മുടെ ഇടവകയിൽ മാതാവിന്റെ പെരുന്നാളാണ് ആഘോഷിക്കുന്നത് പിന്നെ യൂദാസ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് അല്ഫോണ്സാമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട് അങ്ങനെ മതപരമായ പെരുന്നാളുകളുണ്ട് പിന്നെ ഹിന്ദുക്കളുടെ ആണെങ്കിൽ അവർ വിഷു ഓണം അവരുടെ ആഘോഷങ്ങളെക്കെ ഉണ്ട് മുസ്ലീമിന്റെ ആണെങ്കിൽ അവരുടെ പെരുന്നാൾ പിന്നെ റംസാന് ബക്രീദ് അതെക്കെ ആഘോഷിക്കാറുണ്ട് പിന്നെ ജാതി നോക്കാതെ നമ്മൾ പരസ്പരം മത എല്ലാവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുന്നവരാണ് പിന്നെ കൂട്ടായ്മയിലൂടെയാണ് ക്രിസ്ത്യന്സിനെപ്പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ പള്ളി കേന്ദ്രീകൃതമായി ആണ് നമ്മൾ ആചാരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം നടത്തുന്നത് എല്ലാവരും ഒത്തുചേരാറുണ്ട് പിന്നെ ക്രിസ്മസിനാണ് എന്നുണ്ടെങ്കിൽ രാത്രി കുർബാന അതുകഴിഞ്ഞ് പകൽ കുർബാന അത് ഒരു ആഘോഷം തന്നെയാണ് യേശു ജനിച്ചത് അതുകഴിഞ്ഞ് രണ്ടാമത് വരുന്നത് പിന്നെ പെരുന്നാള് പെരുന്നാളിനാണെങ്കിലും നമ്മുടെ കൂട്ടക്കാരും സ്വന്തക്കാരും ബന്ധുമിത്രാദികളും എല്ലാം പെരുന്നാളില് സംബന്ധിക്കാറുണ്ട് അത് വലിയ ഒരു ആഘോഷമാണ് ഞങ്ങള്ക്ക് പിന്നെ വരുന്നത് ഈസ്റ്ററ് ഏറ്റവും വലിയ ഒരു സംഭവമാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പിന്നെ ആരാധന എന്ന് പറഞ്ഞത് ഈസ്റ്റർ ആണ് അതിന്റെ ആചാരങ്ങൾ ഒരാഴ്ച്ച നീളുന്നു ഓശാന ഞായറും അതെല്ലാം അന്പത് നോയമ്പ് തുടങ്ങി അത് തീരുന്നതും വരെ ഈ ദുഃഖവെള്ളിയും ഓശാന ഞായർ ദുഃഖവെള്ളി ദുഃഖശനി പെസഹാവ്യാഴം അങ്ങനെ ഓരോന്നും ക്രമമനുസരിച്ച് ആഘോഷങ്ങളെല്ലാം ആഘോഷിക്കാറുണ്ട് അങ്ങനെയാണ് സമൂഹത്തില് മതം ഒത്തുചേരുന്ന കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും നമ്മുടെ പ്രാര്ത്ഥന പിന്നെ വാര്ഡ് പ്രാര്ത്ഥനകൾ പിന്നെ അല്ലാതെ പൊതുവായിട്ടുള്ള ആരാധനകൾ പ്രത്യേകിച്ച് ഡെയിലി ഉള്ള എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് ഉള്ള കുർബാനയിൽ എല്ലാവരും വരുന്നുണ്ട് അത് മത വിശ്വാസം വിശ്വാസികളുടെ വിശ്വാസം വര്ദ്ധിപ്പിക്കുന്നതിനും അവരെ മാനസികമായി വളര്ത്തുന്നതിനും ഉപകാരപ്പെടുന്നതാണ് കുർബാന വഴി ഓരോ ദിവസത്തെയും വിഷമങ്ങൾ ഇറക്കി വെച്ച് ഓരോരുത്തരും അനുദിനജീവിതത്തില് ഈശോയെ സ്തുതിച്ച് മുന്നോട്ട് പോകുന്നതിന് കുർബാന ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മള് ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ ആ ആഘോഷങ്ങളെ ലക്ഷ്യമാക്കി ഓരോ ദിവസവും നമ്മൾ ജീവിതം സമര്പ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് ഈ ആഘോഷങ്ങള് തന്നെയാണ് പിന്നെ ഇവിടെ നമ്മുടെ പെരുന്നാളൊക്കെ ആഘോഷിക്കുമ്പം അങ്ങനെ ജാതി നോക്കിയൊന്നും അല്ല എല്ലാ ജാതിക്കാരും പല സ്ഥലത്തുനിന്നും വരാറുണ്ട് അങ്ങനെ ഒത്തൊരുമയുള്ള ഒരു നാടാണ് ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളും ഹിന്ദുക്കളും എല്ലാം അവരുടെ ഒരു ആചാരമായിത്തന്നെയാണ് ഇത് കാണുന്നത് അവര്ക്ക് അത് പിന്നെ കൂടുന്നതിൽ അവര്ക്ക് സന്തോഷമേയുളളൂ ഒത്തൊരുമയോടെ വന്ന് പെരുന്നാൾ കൂടി രണ്ട് മൂന്ന് ദിവസത്തെ നല്ല ആഘോഷമായ പെരുന്നാൾ ആള്ക്കാർ കൂടാറുണ്ട് അത്തരത്തിലുള്ള സന്ദര്ഭം ഇങ്ങനെ വര്ഷത്തിൽ ഒരിക്കലാണ് ഈ വലിയ പെരുന്നാളായിട്ടുള്ളത് മാതാവിന്റെ പെരുന്നാൾ പിന്നെ അല്ലാതെ യൂദാസ്ലീഹായുടെ പള്ളിയിലുണ്ട് അതിലും എല്ലാവരും സഹകരിക്കാറുണ്ട് അല്ഫോണ്സാമ്മയുടെ പെരുന്നാൾ അറിഞ്ഞ് കേട്ട് ഒരുപാട് സലത്തുനിന്ന് ആള്ക്കാട് വരുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് ക്രിസ്ത്യാനികൾ അല്ലെങ്കില്പ്പോലും അല്ല മറ്റു ജാതികളിലുള്ളവർ വിശ്വാസത്തിന്റെ പുറത്ത് അവരുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന്റെ പുറത്തെക്കെ വന്ന് ഇതിൽ സഹകരിക്കുന്നവരുണ്ട് പിന്നെ പെരുന്നാളിന് സാമ്പത്തികമായി സഹായം ചെയുന്നവരുണ്ട് അത് ഈ മൂന്ന് പെരുന്നാളിലും പിന്നെ വേറെ ജാതിക്കാർ ഒരുപാട് പേര് മതം നോക്കിയൊന്നും അല്ല അവർ അവരുടെയും കൂടി ഒരു ആഘോഷം ആണെന്നുള്ള രീതിയിലാണ് അവർ ഇതിലൊക്കെ സഹകരിക്കുന്നത് അതിലൊക്കെ നല്ല ഒരു സഹകരണമുള്ള നാടാണ് നമ്മുടേത് അതിലൊന്നും ഒന്നും പറയാനില്ല അപ്പം ഞങ്ങൾ നല്ല രീതിയിലൊക്കെത്തന്നെയാണ് ഇതൊക്കെ ആഘോഷിക്കാറ്